ഇന്ത്യന് സമൂഹത്തിൽ മതത്തിന്റെ പങ്കെന്താണെന്ന് എന്തുവാ മതത്തിന്റെ മതത്തിലെ ഓരോത്തർ വിശ്വസിക്കുന്നവർ അവരവരുടെ വിശ്വ കരുതിച്ച് മുന്നോട്ടു പോകട്ടെ എന്നേ എനിക്ക് പറയാം മറ്റു മതങ്ങളിലെ എല്ലാ കാര്യങ്ങളും എല്ലാവരും അവരവരുടെ മതങ്ങളിലെ കാര്യങ്ങളെല്ലാം നല്ലതായിട്ട് കണക്കാക്കും മറ്റുള്ളവരുടെ കാര്യങ്ങൾ അത്ര നല്ലതാണെന്ന് അവർ വിശ്വസിക്കത്തില്ല അവർ സമ്മതിക്കത്തുമില്ല അപ്പം നമ്മൾ നമ്മുടെ ഇതിനകത്ത് നിന്നു കൊണ്ട് അവിടെ ഉള്ള മതങ്ങളുടെ കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുകയും അതിന്റെ കാര്യങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്യും പക്ഷെ പറയുകയും പ്രവര്ത്തിക്കുകയും ചെയ്താൽ മതി ഇത് പിന്നെ നല്ലതാണോ അല്ലയോയെന്നു ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം നല്ലതാണ് ഒന്നും മോശമല്ല എല്ലാം നല്ലതാണ് ഏതിലാണ് നല്ലതെന്നുള്ളവരും ക്രിസ്ത്യാനിയായിട്ട് ഞാൻ പറയുമ്പോള് ഏറ്റവും നല്ലത് ക്രിസ്ത്യന് മതമാണ് കാരണം ഇതിൽ നിന്നു നമുക്ക് മരണാനന്തരം ഒരു ജീവിതമുണ്ടെന്നും അതു നല്ല രീതിയിൽ പോകണമെന്നുണ്ടെങ്കില് ഇവിടെ നല്ല രീതിയിൽ ജീവിക്കണമെന്നും ഒക്കെ അതിനകത്ത് പഠിപ്പിക്കുന്നുണ്ട് അതൊക്കെയിപ്പം നല്ലയൊരു കാര്യമാണ് മറ്റുള്ള ഇടത്തൊക്കെ എങ്ങനെയാണ് പഠിപ്പിക്കുന്നത് നമുക്കറിയത്ത് പോലുമില്ല അപ്പം പിന്നെ നമുക്ക് വേറൊന്നും എടുത്തു പറയാനൊന്നും പറ്റത്തില്ല പിന്നെ നല്ല രീതിയിൽ പോകുകയെന്നു പറയുമ്പോൾ നമ്മുടെ പ്രവൃത്തികളിലും സ്വഭാവത്തിലുമായിരിക്കണം കുറേയൊക്കെ ഇതുണ്ടാകേണ്ടത് അതായത് നല്ല പ്രവൃത്തികള് ചെയ്തു മുന്നോട്ടു പോകണം നല്ല പ്രവൃത്തികൾ ചെയ്തു മുൻപോട്ടു പോകുമ്പം നല്ലതായിട്ടു നടക്കാൻ പറ്റും അതായത് മറ്റുള്ളവരെ വഞ്ചിക്കാതിരിക്കുക മറ്റുള്ളവരോട് കള്ളങ്ങളൊത്തിരി പറയാതിരിക്കുക സത്യസന്ധതയോടെ മുന്നോട്ടു പോകുക നല്ല രീതിയിൽ നിൽക്കാന് അങ്ങനെയൊക്കെയാണ് അതായത് ദൈവീകമായിട്ടുള്ള ചിന്തയും ദൈവമായിട്ടുള്ള അടുപ്പത്തിലും കൂടെ മുന്നോട്ടു പോകുന്നവര്ക്ക് അല്ല ദിവസവും രാവിലെ സമയത്തിനെഴുന്നേൽക്കുകയും കിടക്കുകയും രാവിലെയും വൈകിയിട്ടും ഒക്കെ പ്രാര്ത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഏറ്റവും നല്ല കാര്യങ്ങളാണ് അങ്ങനെയൊക്കെ എല്ലാം ചെയ്തു കഴിയുമ്പോഴത്തേന് നമുക്ക് നല്ല രീതിയിൽ മുൻപോട്ടു പോകാന് സാധിക്കും അങ്ങനെ എല്ലാ മതങ്ങളും നല്ലതാണോ ചോദിച്ചാൽ നല്ലതാണ് എല്ലാ മതങ്ങളും അഴുക്കാണോ അഴുക്കാണ് അപ്പം നല്ല മതങ്ങളേതാണെന്നോ അഴുക്ക് മതങ്ങളേതാണെന്നോ നമുക്ക് പ്രത്യേകം പറയാനൊന്നും പറ്റത്തില്ല അപ്പം അതുകൊണ്ട് എല്ലാ മതവും നല്ലതാണ് എല്ലാ മതത്തിലും വിശ്വസിക്കുന്ന ആള്ക്കാരിഷ്ടം പോലെയുണ്ട് അവരുടെ വിശ്വാസത്തിലവര് മുൻപോട്ടു പോകട്ടെ നിൽക്കുന്നിടത്ത് നിന്നു കൊണ്ട് നല്ല രീതിയില് വിശ്വസിക്കുകയും മറ്റുള്ളവരെ മനുഷ്യനായിട്ട് അംഗീകരിക്കുകയും കൂടി ചെയ്യണം അതായത് ഒരു ക്രിസ്ത്യാനി ഹിന്ദു അഴുക്കാണെന്നും പറഞ്ഞ് അവന് പ്രവൃത്തിക്കുന്നതെല്ലാം അഴുക്കാണെന്നും പറഞ്ഞു കൊണ്ട് തള്ളിക്കളയരുത് അവന് ചെയ്യുന്ന നല്ല പ്രവൃത്തികള് നല്ലതാണ് അതുപോലെ നമ്മൾ മറ്റുള്ള പ്രവൃത്തികൾ ചെയ്തു കാണിക്കണം സ്നേഹത്തോടു കൂടി പെരുമാറണം അയൽ വക്കത്തുള്ളവനെ കണ്ണുകൾ തുറന്നു കാണാന് ശ്രമിക്കണം അവന്റെ ഇല്ലായ്മകളിലും വയ്യായ്മകളിലും അവനെ സഹായിക്കണം മറ്റുള്ളവരുടെ കൂടെ നമ്മളങ്ങനെയൊക്കെയാണ് പെരുമാറേണ്ടത് അവരോട് നല്ല രീതിയില് പെരുമാറുമ്പോള് നല്ല പ്രവൃത്തി നമ്മൾ ചെയ്യുമ്പോള് അവര്ക്കും നമ്മളോടു താത്പര്യം ഉണ്ടാകുകയും നമുക്കവരോടു താത്പര്യം ഉണ്ടാകുകയും ചെയ്യും അങ്ങനെ എല്ലാം മുന്നോട്ടു പോയിക്കഴിഞ്ഞാല് നമുക്കു നിലനില്ക്കാന് സാധിക്കും നമ്മുടെ ഇന്ത്യയിലാണെങ്കില് ഇപ്പം പത്ത് ഇരുപത്തെട്ട് സ്റ്റേറ്റുണ്ടിവിടെ എന്തു മാത്രം മതം ഉണ്ട് എന്തു മാത്രം ഭാഷകൾ സംസാരിക്കുന്നെന്നും കറക്റ്റായിട്ടൊന്നും എനിക്കറിയത്തില്ല എങ്കിലും പത്തിരുപത്തെട്ട് മുപ്പത് ഭാഷകളെങ്കിലും ഉണ്ട് പത്ത് മുപ്പത് സ്റ്റേറ്റുണ്ട് എല്ലാം കൂടി നോകുമ്പോഴത്തേന് നല്ല രീതിയില് മുന്നോട്ടു പോകുന്നത് ഏറ്റവും നല്ലതാണെന്നെ എനിക്ക് പറയാനുള്ളൂ